ഒട്ടുമിക്ക ആൾക്കാരും ആദ്യം തന്നെ ഓടിക്കാൻ പഠിക്കുന്ന ഒരു സാധനമാണ് ഈ സൈക്കിൾ സൈക്കിൾ ഓടിക്കുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ എന്താണെന്ന് വച്ചാൽ സൈക്കിൾ നമ്മൾ നമ്മുടെ ഊർജ്ജം ഉപയോഗിച്ചാണ് ഓടിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ വേഗത വളരെ കുറവായിരിക്കും നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലത്ത് എത്താൻ സമയത്തിന് എത്താൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സൈക്കിൾ ഓടിക്കാൻ ഞാൻ പഠിച്ചത് ഏകദേശം ആറാം ക്ലാസിൽ നിന്നാണ് അപ്പോൾ ആറാം ക്ലാസും ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് ഇത്രയും കാലം ഞാൻ സൈക്കിൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എവിടെ പോവാനും സൈക്കിൾ ആയിരുന്നു യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ട്യുഷൻ ക്ലാസ്സിൽ പോവാനാണെങ്കിലും സ്കൂളിൽ പോവാനാണെങ്കിലും എവിടെ പോവാനാണെങ്കിലും ഞാൻ സൈക്കിൾ തന്നെയായിരുന്നു യൂസ് ചെയ്യാറുണ്ടായിരുന്നത് ഇതിന് ധാരാളം ഊർജം ആവശ്യം വരുമായിരുന്നു നമ്മളെ ശരീരത്തിന് വളരെ വളരെ നല്ലതാണ് വേഗത കുറവായിരിക്കും പക്ഷേ നമ്മളെല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും കൂടി സൈക്കിളെടുത്ത് പോകുമ്പോഴുള്ള ഉത്സാഹവും എല്ലാം വളരെ വളരെ അടിപൊളിയാണ് അതിൽ നിന്ന് ബൈക്കിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് അങ്ങനെയൊരു പ്രശ്നമില്ല പക്ഷേ ബൈക്കിൻ്റെ ഒരു ഗുണമെന്താന്ന് വച്ചാൽ നമുക്ക് വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് എപ്പോൾ വേണമെങ്കിലും എത്തിച്ചെല്ലാൻ പറ്റും നമ്മളെ ഊർജമല്ല പെട്രോൾ ഉപയോഗിച്ചാണ് ആ വണ്ടി നീങ്ങുന്നത് അതുകൊണ്ട് അതിൻ്റെ അതിൻ്റേതായ കുറച്ച് ഡ്രോബാക്കുകൾ പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന് വളരേ മികച്ചതായ ഒരു സാധനവും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല സൈക്ലിങ്ങിനെ അപേക്ഷിച്ച് ബൈക്കിംഗ് ഒരു മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും അത് ആരോഗ്യത്തിന് വളരെ ഗുണമായി ഒന്നും ചെയ്യാത്തതുകൊണ്ട് കംപാരിറ്റീവിലി സൈക്ലിങ്ങ് ആണ് ഏറ്റവും നല്ലത് കാരണം ഇപ്പോൾ ഉള്ള എല്ലാവരും സൈക്ലിങ്ങിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ട് ഡോക്ടേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ അത്രേയേറെ അധികമായിട്ടുണ്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഗിയർലെസ്സ് സൈക്കിൾ ആയിരുന്നു ബട്ട് ഇപ്പോൾ നിരവധി ഗിയർ ഗിയേർഡ് സൈക്കിൾസ് ആണ് ഉള്ളത് അത് ഒരു പക്ഷേ ഇതിനേക്കാട്ടും കൂടുതൽ നല്ലതാണ് നമ്മളെ കയറ്റം ചവിട്ടി വലിക്കാനും എല്ലാത്തിനും ഗിയറിട്ടുള്ള സൈക്കിൾ ആണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് അഡ്രിനാലിൻ്റെ കുത്തകയൊക്കെ ഉളളത് കൊണ്ടും എന്താ പറയുക വളരെ വളരെ ഊർജവും പെട്ടെന്നുള്ളൊരു വണ്ടി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോളും കാര്യങ്ങളൊക്കെ അഡ്രിനാലിൻ്റെ കുത്ത് കൊണ്ടും കാരണങ്ങൾ കൊണ്ടും അടിപൊളിയാണ് എന്താ പറയുക ഈയൊരു ഫ്ലോയിലങ്ങ് പോവും പിന്നെ ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്കെന്താ പറയുക ഇങ്ങനെയൊരു അനുഭവമൊന്നും കിട്ടത്തില്ല ജസ്റ്റ് നമുക്ക് ഹൈഡ് ചെയ്തു പോവാം അല്ലെങ്കിൽ റൈസ് ചെയ്തു പോവാം ഫാസ്റ്റ് കൂട്ടി പോവാം അങ്ങനെ കുറേ ഉപകാരങ്ങൾ ഉണ്ട് എന്നു വച്ചാൽ പോലും ശരീരത്തിന് കാര്യം അപേക്ഷിച്ച് നോക്കുമ്പോൾ മാത്രമാണ് സൈക്ലിംഗ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ താങ്ക് യു